അ ഞാൻ വിളിച്ചത് ഓർഡറ് പറയാൻ വേണ്ടിയിട്ടായിരുന്നേ പിടിയും കോഴിയും കറിയും ഉണ്ടാകുമോ അ അ അ വേറെ ബിരിയാണി വേണമായിരുന്നു ഒരു അൻപത് പേർക്കുള്ളതാണ് അടുത്താഴ്ച്ച ത്തേക്കാണ് അപ്പോൾ ഹോം ഡെലിവറി ചെയ്യണം പറ്റില്ലേ അ അ ഇത് മാനന്തവാടി അ അ അടൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അ അ എത്ര എമൗണ്ട്

അ അ

മൊത്തം മൊത്തം എത്ര എമൗണ്ട് വരും അ ആണല്ലേ അ അത് അത്ര വേണ്ട ഒരു ഇരുപത്തി അഞ്ച് മതി അ വേറെ അവിടെ എന്താ സ്പെഷ്യലായിട്ട് ഉള്ളത്

അ അ അ ബീഫ് ബീഫ് ഐറ്റം ഉണ്ടൊ അ അ അത് എന്തൊക്കെയാണ്

പിന്നേ എന്നാൽ ഒരു പത്ത് അ ഒരു പത്ത് പൊറോട്ടയും അതിനനുസരിച്ചുള്ള ഒരു ബീഫ് കറിയും ഇപ്പോൾ എടുക്ക് അ ബീഫ് ഫ്രൈ മതി കെട്ടോ

അ അത് എപ്പോഴത്തേക്കാണ് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്യണോ

അത് മറ്റന്നാളത്തേക്കാണ് അ അ മതി അ ആയിക്കോട്ടെ ആയിക്കോട്ടെ അ ഓക്കേ അ വിളിച്ചേ അ വിളിച്ചേക്കാം അ ശരി